വയനാട് ജില്ലയുടെ ചരിത്രം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് വയനാട് ജില്ല എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആദിവാസികള് മാത്രം അതായത് ആദ്യം കാട് കാട് മാത്രം അതായത് മെയിൻ ആയിട്ട് വന്യ മൃഗങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള കാട് മാത്രമുള്ള ഒരു ജില്ലയായിരുന്നു വയനാട് ജില്ല പിന്നെ അതില് ആദിവാസികളൊക്കെ കുടിയേറി പാർത്തു അത് ശെരിക്കും പറഞ്ഞാൽ ആദിവാസികളുടെ ജില്ലയാണ് പിന്നെ പിന്നെ നമ്മളെ നമ്മള് പോലുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വന്ന് വന്ന് തുടങ്ങിയത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടൊക്കെ വളരെ കുറവാണ് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുനെല്ലി ഏരിയ അങ്ങനെയുള്ള ഏരിയ തിരുനെല്ലി പുൽപ്പള്ളി അങ്ങനെയുള്ള ഏരിയയിലൊക്കെയാണ് കാട് കാര്യങ്ങളൊക്കെ ഉള്ളത് ശെരിക്കും പറഞ്ഞാൽ ഇതൊരു വന്യ മൃഗങ്ങളുടെ ഏരിയ ആയിരുന്നു നമ്മളാണ് അവരെ നമ്മളാണ് ഇവിടെ കുടിയേറി പാർത്തത് ആ ഈ ജില്ലയിലൊക്കെ ആണ് പഴശ്ശിരാജ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണ് നമുക്ക് നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് പ്രശസ്തരായവരാണ് പിന്നെ പറ പരശ്ശി പഴശ്ശിരാജേൻ്റെ പിന്നെ അതായത് പഴശ്ശിരാജേൻ്റെ കബറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ആണ് വയനാട്ടിലാണ് ഉള്ളത് ശവ സംസ്കാരൊക്കെ നടന്നത് വയനാട്ടില് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിലെ മൈസൂർ റോഡ് അതായത് മാനന്തവാടി വഴി പോയിട്ടുണ്ടെങ്കിൽ മൈസൂർ റോഡിലേക്ക് ഉള്ളൊരു വഴി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്